ഹലോ എനിക്ക് പ്രമോ ക്കോഡ് എനിവേ ഒക്കെ സന്തോഷമുണ്ട് ഞാൻ പ്ലേ സ്റ്റേഷൻ ആണ് ഞാൻ ഓപറ്റ് ചെയ്തത് സൗജന്യ ഷിപ്പിങ്ങിനായി പ്രമോ ക്കാഡ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം ബട്ട് അയാം ഞാൻ ചെക്കൗട്ട് പേജിലാണ് പക്ഷെ ഞാൻ ഷിപ്പിങ്ങ് ഓപ്ഷനുകൾ തെരഞ്ഞെടുത്താൽ എനിക്ക് ആ ചെക്കൗട്ട് ഓപ്ഷനിൽ ഫ്രീ ഷിപ്പിങ്ങിനായിട്ടുള്ള പ്രമോ നൽകിയിട്ടുമേ അതിൽ ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ ഏറെ അസംതൃപ്തനാണ് അപ്പം ഇതിന് കാര്യക്ഷമമായിട്ടുള്ള ഒരു സൊലൂഷൻ നിങ്ങൾ നിർദ്ദേശിക്കുമല്ലോ ഓക്കെ താങ്ക് യു